പണ്ടുള്ള കുറച്ചു വർഷങ്ങൾക്കു മുമ്പുള്ള എന്ന് പറയുമ്പം ചെറിയ ഫോൺ ആണ് ഇപ്പോഴത്തെ ഫോണുകളെന്ന് പറയുമ്പം വലിയ ടച്ച് ഫോണാണ് അത് നല്ല നല്ല വിലയുള്ള ഫോണുകളും സ്മാർട്ട് ഫോണുകളും ഒരുപാടുണ്ട് പണ്ട് ചെറിയ ഫോണെന്ന് പറയുമ്പം നമ്മളൊന്ന് വിളിക്കുക അങ്ങ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്നങ്ങനെയല്ല നമ്മുടെ ലോകത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാവോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് കാണാം ലോകത്തെ ഏതെല്ലാം ഭാഗത്ത് എന്ത് സംഭവം നടക്കുന്നോ നമ്മളിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ലുക്ക് നമുക്ക് കാണാം ഇപ്പോൾ വാർത്ത കാണാനോ പാട്ട് കേൾക്കാനോ നമുക്ക് എന്താണ് നമുക്കതെന്താണ് ചോദിച്ചെന്ന് അത് പറഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങോട്ട് റിപ്പീറ്റ് ആയിട്ട് നമുക്കത് പറഞ്ഞോണ്ടിരിക്കുവാണ് അതുകൊണ്ട് അതിന്റെതായ കാര്യങ്ങളിലെല്ലാം നമുക്ക് ചെയ്യാം നമുക്ക് അതുപോലെ ഈ ഫോണ് ഈ സ്മാർട്ട് ഫോണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യാം അതുപോലെ കുറെ ദോഷമുള്ള കാര്യങ്ങളും ഉണ്ട് നല്ല കാര്യമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു സ്ഥലത്ത് കുടുങ്ങി കിടക്കുവാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഇത് ഫോണിൻറെ റേഞ്ച് അനുസരിച്ച് നമ്മളെ ഏത് ഇതിന് താഴെയാണ് നിക്കുന്നെന്നുള്ളത് നമുക്കെന്തെങ്കിലും അപകടം സംഭവിക്കുവാണെങ്കിൽ അതൊക്കെ അറിയാം മറ്റ് പണ്ടത്തെ ചെറിയ ഫോൺ ആവുമ്പോൾ നമുക്ക് റേഞ്ച് നോക്കിയാൽ അറിയാം എന്നാലും ഇങ്ങനുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്ക് എന്തും കൊണ്ട് സ്മാർട്ട് ഫോൺ നല്ലതാണ് ഇപ്പോൾ ഏതു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഈ ഫോൺ ഇല്ലാത്ത ഒരു മനുഷ്യരു പോലുമില്ല അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോകും ചിലർ അത് ചീത്ത രീതിയിലത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെ പോകത്തൊള്ളൂ പിന്നെ ഞാൻ എൻറെ സിം കാർഡ് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ എയർട്ടലാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് ആ എയർടെല് ഞാൻ യൂസ് ഏത് സിം കാർഡ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഐർട്ടലാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപായ്ക്കാണ് ഞാനത് മന്തിലി ഞാൻ ചെയ്യുന്നത് അപ്പം അതനുസരിച്ച് പ്രതിമാസം ഞാൻ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് രൂപയാകും ചെയ്യുമ്പം